വിളവ് കൃഷികളെ ഞങ്ങളിവിടെ സംമൃഗങ്ങളിൽ നിന്നും മറ്റും സംരക്ഷിക്കുന്നത് കൃഷികളെ ഞങ്ങൾ മൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഈ പന്നികേറാതിരിക്കാന് വേലി കെട്ടുന്നു മുള്ളുവേലി ഇടുന്നു മുള്ളുവേലിയെന്നു പറഞ്ഞാൽ അകത്തിയകത്തി ഇട്ടിട്ട് കാര്യമില്ല അടുപ്പിച്ചടുപ്പിച്ച് മുള്ളുവേലിയിടുന്നു പിന്നെ ഇങ്ങനെ എന്തുവ ഈ കമ്പി ഇഴ കൊണ്ടുള്ള കമ്പിയുടെ നെറ്റ് കെട്ടുന്നു ചിലര് മതിൽ കെട്ടുന്നു ചിലര് ടിൻ ഷീറ്റ് പോലുള്ളത് കൊണ്ട് മറയ്ക്കുന്നു പിന്നെ രാത്രിയൊക്കെ ഇറങ്ങി കുറേയൊക്കെ മിനക്കെട്ട് നടക്കുന്നവരുമുണ്ട് അങ്ങനെ എന്നാലും പന്നിയെ കാട്ടുപന്നിയല്ലേ അവരെ എങ്ങനെ ചെയ്യാൻപറ്റും എലിയെ പിടിക്കാൻ പിന്നെ എലിപ്പെട്ടി വെച്ചും പട്ടിയെ കൊണ്ട് നടന്നും എലി വിഷം വെച്ചും ഒക്കെ എന്നാലും തൊരപ്പൻ എലി ഒന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മണ്ണിൽകൂടെ തന്നെ ഉള്ളവരല്ലെ പിന്നെ കുഴി വെള്ളം വന്ന് വീണ് കുഴി ഉണ്ടാകാനൊക്കെ ചെയ്തു കുഴി കുത്തിവെക്കും വെള്ളം ഇറങ്ങി ചാകാൻ വേണ്ടിയൊക്കെ തുരപ്പൻ എലിയൊക്കെ അങ്ങനെ കുറേയെങ്കിലും ഇതൊന്നും ഇതൊന്നും അവര് പോ പൂർണമായും ഇല്ലാതാക്കാവുന്ന ഒന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല ഒന്നും ആയിട്ടുമില്ല അതങ്ങ് അതിനനുസരിച്ച് മനുഷ്യര് കൃഷിയിൽ നിന്ന് അകന്ന് അല്ലാതെ പലമാർഗംങ്ങളും നോക്കുന്നുണ്ട് അതൊന്നും വിജയത്തിൽ എത്താത്തതുകൊണ്ടാണ് പിന്നെ ഇതങ്ങ് ഉപേക്ഷിക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് മനുഷ്യൻ മാറുക പിന്നെ വെടിവെച്ചൊക്കെ പന്നി കാട്ടുപന്നിയെ ഒക്കെ പിടിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം പ്രധാനമായും കൃഷി നശിപ്പിക്കുന്ന മൃഗങ്ങളാണ് കാട്ടുപന്നിയും എലിയും പന്നി എലി തുരപ്പൻ എലി കീരിയൊക്കെ ശല്യം ഉണ്ടെങ്കിലും ഇത്രെയൊന്നും നമുക്ക് കൃഷി നിർത്താൻ തോന്നുന്ന രീതിയിലൊന്നും അവരിൽ നിന്ന് ഉണ്ടാകുന്നില്ല ഇതൊക്കയാണ് ഇവരുടെയാണ് ഏറ്റവും പറ്റാത്തത് കാട്ടുപന്നി തന്നെയാണ് വാഴയായാലും കപ്പയായാലും ചേമ്പും തെങ്ങും തൈ റബർ തൈ എല്ലാം നശിപ്പിച്ച് കുത്തിമറിച്ച് താമസിക്കുന്ന വീടിൻ്റെ മുറ്റത്തു വരെ വന്നാണ് നാശം ചെയ്തിട്ട് പോകുന്നത് ഗ്രോ ബാഗിൽ നട്ടുവക്കുന്നത് പോലും തള്ളിമറിച്ചിട്ടിട്ട് പോകുന്നുണ്ട് ഇവരെ പൂർണമായും നശിപ്പിക്കാൻ ഇതുവരെയും ഒരു മാർഗവും ഒരു ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതിനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുമില്ല ജനങ്ങളുടെ ഭാഗത്തുനിന്നുമില്ല പറയുവാണെങ്കിൽ അവര് ജനങ്ങളാൽ പറ്റുന്ന വിധത്തിൽ അവര് പരിശ്രമിക്കുന്നുണ്ട് എന്നാലും അവരാണ് വിജയികൾ വിജയത്തിൽ എത്തുന്നത് അവരുതന്നെ മുന്നോട്ട് പൊയ്കൊണ്ടിരിക്കുന്നു ജനങ്ങള് പുറകോട്ട് മാറുകയാണ് ചെയ്തിരിക്കുന്നത് പല മാർഗങ്ങളും നോക്കുന്നുണ്ട് ഇനിയെന്ത് മാർഗത്തിലാണ് ഈ കാട്ടുപന്നികളെ നിയന്ത്രിക്കും കുറെ കാട്ടുപന്നികളെ നിയന്ത്രിക്കുവാണേൽ മനുഷ്യര് കപ്പ വാഴ ചേന ചേമ്പ് അങ്ങനെയുള്ള ഭക്ഷണ യോഗ്യമായ കൃഷികൾ കൃഷി ചെയ്ത് ധാരാളം എടുക്കുവായിരുന്നു ഇതുപോലെ മാർക്കറ്റുകളിലെ സാധനങ്ങൾക്ക് വില കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയുമില്ല ഇത്രയും സാധനങ്ങൾക്ക് വിലയും ഉണ്ടാകുക ഇല്ലായിരുന്നു മാർകെറ്റുകളില് ഇതിപ്പം അതൊന്നും ചെയ്യാൻ പറ്റാതെ പിന്നെ മതില് കെട്ടാവുന്ന മതിൽ കെട്ടി കൃഷി ചെയ്യാവുമെന്ന് നോക്കിയാല് ഏക്കറുകണക്കിന് മതിലുകെട്ടിയാല് അല്ലേ അത് നെറ്റിൻ്റെ കമ്പിയടിച്ചാല് ഇതൊന്നും എത്ര വർഷം കൃഷി ചെയ്താലാണത് അതിൽ നിന്നും ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അതുപോലെ അല്ലേ അതിൻ്റെ ചിലവ് വേലികെട്ടുന്നേനോ മതില് കെട്ടുന്നതിനോ മറ്റോ ഏക്കറുകണക്കിന് അതൊന്നും നമ്മൾ സാധാരണ ജനങ്ങൾക്ക് ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യങ്ങളല്ല പ്രധാനമായും ഇവര് ചെയ്യുന്നത് ഇവര് ചെയ്യുന്നത് ആ നഷ്ടങ്ങളെന്നുപറഞ്ഞ പ്രധാനമായും റബ്ബർ ഒക്കെ വന്ന് കുത്തിപടത്തി തൈ ആയിരിക്കുമ്പം അത് കുത്തി മറിച്ചിട്ടിട്ട് പോകുന്നു കപ്പ ചേമ്പ് ചേന കാച്ചില് മണ്ണിൽ കൃഷി ചെയ്യുന്ന എല്ലാ സാധനവും അവര് നശിപ്പിച്ചിട്ട് പോവുകയാണ് ഇതിന് എന്താണ് ഇതിന് എന്താണ് ഒരു പരിഹാരമെന്നുള്ളത് ഇതുവരെയും പൂർണമായും ഒരു പരിഹാരമാർഗം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് മാന്യജനങ്ങൾ വലയുകയാണ് കൃഷിക്കാരായ ജനങ്ങളാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരുടെ ഒരു വലിയ തൊഴിൽ മാർഗ്ഗമായിരുന്നു അതെല്ലാം ഇന്നിപ്പം അതുകൊണ്ട് പറമ്പുകളെല്ലാം കാടുപിടിച്ച് വനം കയറി മറ്റു ജീവികളെകൊണ്ട് നിറയുകയാണ് ചെയ്യുന്നത് ഈ കാട്ടുപന്നിയുടെ വരവോടുകൂടിയാണ് ഇത്രയും കൃഷിയുടെ ഫീൽഡിൽ നിന്ന് മനുഷ്യൻ മാറിയതെന്നാണ് എൻ്റെ അഭിപ്രായം അതിന് മുൻപ് ഇത്രെയും ഒന്നും ഇല്ലായിരുന്നു ഇതിങ്ങളെ തുരത്തി ഓടിക്കാനുള്ള പിന്നെ ആനയാണേലും വനത്തിൽ നിന്നിറങ്ങി വനപ്രദേശത്ത് കൂടെ പരിസരങ്ങളിൽ ഉള്ള ജനങ്ങളുടെ കൃഷി നശിപ്പിക്കുന്നത് മറ്റും ഒക്കെ നമ്മൾ വാർത്തയിലും ടീവിയിലും പത്രത്തിലുമൊക്കെ കാണുന്നുണ്ട് അവരും ഈ വനത്തിൽ നിന്നിറങ്ങുന്നു പിന്നെ മയിലുകൾ ഇറങ്ങി നശിപ്പിക്കുന്നന്നെന്നും പറയുന്നുണ്ട് നമ്മുടെ ഈ ഭാഗത്തങ്ങനെ കേട്ടിട്ടില്ല മയിൽ വന്ന് എല്ലാം കിളിർത്തു വരുന്നതിൻ്റെ കിളിർപ്പെല്ലാം കൊത്തിത്തിന്ന് കൃഷി നശിപ്പിക്കുന്നുണ്ട് കൃഷി ചെയ്യുന്നില്ലെന്ന് ചില ഭാഗത്ത് പറയും പിന്നെ കുരങ്ങൻ്റെ ശല്യവും ചില ഭാഗങ്ങളിൽ ധാരാളം ഉണ്ട് എല്ലാം കൊത്തിപ്പറിച്ച് തേങ്ങായും വെള്ളക്കായും എല്ലാം കൊത്തിക്കളയുകയും കൊത്തികളയുകയും തിന്നുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന വാഴക്കുല ആണേലും പച്ചക്ക തൊട്ട് തിന്ന് നശിപ്പിക്കുന്നതിനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് സാധാരണ മനുഷ്യർക്ക് ആലോചിച്ചാൽ തന്നെ അവർക്ക് ചെയ്യാവുന്ന ഇപ്പം അവരുടെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ അവര് ചെയ്യുന്നുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും മൃഗങ്ങളെ തോൽപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല